നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് നിരവധി ഇതേ മരങ്ങളും മൃഗങ്ങളൊക്കെയുണ്ട് പ്രധാനായിട്ടും കാട്ടു പന്നി പിന്നെന്താണ് പെരുമ്പാമ്പ് കുറുക്കന്മാർ തുടങ്ങിയ നിരവധി മൃഗങ്ങൾ അവിടെ ഉണ്ട് ഇടയ്കൊക്കെ മയിലിനെ കാണാം അതുപോലെ തന്നെ നിരവധി മരങ്ങളുണ്ട് അവ നമുക്ക് തണലായിട്ടൂം ആവശ്യമുള്ള വിറകായിട്ടുമൊക്കെ നമുക്ക് തരുന്നുണ്ട് പിന്നേ തണ്ണീർതടങ്ങൾ നമുക്ക് കുടിവെള്ളമായും പിന്നേ എന്താണ് പറയുക അലക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി വെള്ളമായും തരുന്നുണ്ട് പിന്നെ എന്ന് നിരവധി നദികളും മലകളും ഒക്കെയുള്ളൊരു നാടാണ് നമ്മുടേത്